നമ്മുടെ കണ്ണൂർ ജില്ലയിൽ തന്നെ ഇള്ള ഏറ്റവും നല്ലൊരു മനോഹരമായൊരു ഒര് മലയാണ് പൈതൽ മല ഞാൻ അവിടെ പോയി പോയപ്പോൾ അവിടെ നല്ല ഒരു മഞ്ഞ് മൂടിയ ഒര് കാലാവസ്ഥ ആയിരുന്നു ഞാൻ കുറച്ച് മഴയുള്ള മഴ മഴ അങ്ങനെ മഴ പാറുന്ന കുറച്ച് മഴ പാറുന്ന ഒര് സമയത്താണ് ഞാൻ അവിടെ പോയത് ഒര് ഏഴ് മ് ഏഴ് എട്ട് മണിയോടെയാണ് ഞാൻ അവിടെ എത്തിയിരിക്കുന്നത് അവിടെ എത്തിയത് എത്തിയപ്പോൾ അവിടുന്നാണ് ഞാൻ അറിഞ്ഞത് അവിടുത്തെ ഗേറ്റ് തുറക്കുന്നത് ഒമ്പത് മണി ഒമ്പത് മണിഒമ്പതര ആകുമെന്നാണ് അവിടുത്തെ കൗണ്ടർകാർ എന്നോട് പറഞ്ഞത് ഞാൻ എൻ്റെ കൂട്ടുകാരോടൊപ്പമാണ് അവിടെ പോയത് നമ്മൾ ബൈക്കിലാണ് അവിടെ പോയത് നല്ല നല്ലൊരനുഭവാണ് അത് അവിടെ പോയപ്പോൾ ഫുൾ നല്ല നല്ല മഴയുണ്ടായിരുന്നു നല്ല അല്ല ചെറുങ്ങനെ നല്ല മഴ പാറുന്നുണ്ടായിരുന്നു അത് കുറച്ച് കഴിഞ്ഞപ്പോൾ ആ മഴ മഴ പോയി അതിനു ശേഷം അവിടെ ഫുള്ള് മഞ്ഞ് മഞ്ഞ് മഞ്ഞിറങ്ങാൻ തുടങ്ങി മഞ്ഞിറങ്ങാൻ തുടങ്ങിയിട്ട് നോക്കുമ്പോൾ മരങ്ങൾക്കിടയിലൂടെ നല്ല ഫുൾ മഞ്ഞായിരുന്നു ഫുള്ള് മേലെ നിന്ന് നമ്മള് താഴോട്ട് നോക്കുമ്പോൾ ഫുള്ള് മഞ്ഞായിരുന്നു നമുക്ക് കാണാൻ പറ്റിയിരുന്നത് പിന്നെ അവിടെ എനിക്ക് ഏറ്റവും അനുഭവപ്പെട്ട ഒരു ഫുൾ അട്ടയായിരുന്നു എൻ്റെ കാലിലും കൈക്കുമെല്ലാം അട്ടകടിച്ചിട്ട് വല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു അട്ടയെ കൊണ്ട് ഞാൻ എൻ്റെ കയ്യില് ഒരു സാനിറ്റൈറ്റ് സാനിറ്റൈസർ ഉണ്ടായത് കൊണ്ട് ഞാൻ സാനിറ്റൈസർ അടിച്ചുകൊണ്ടാണ് ഈ അട്ടയെ തുരത്തിയത് കൊറോണ സമയമായതുകൊണ്ട് സാനിറ്റൈസർ എൻ്റെ കയ്യിൽ അപ്പോൾ ഉണ്ടായിരുന്നു സാനിറ്റൈസർ ഉണ്ടായത് കൊണ്ടെനിക്ക് വളരെ ഇതുണ്ടായിരുന്നു ഞാൻ പിന്നെ പൈതൽ മല അവര് ഗേറ്റ് തുറന്നു അവിടുത്തെ ഗേറ്റ് തുറന്നപ്പോൾ നമ്മള് നമ്മളെല്ലാവരും മല കയറാൻ തുടങ്ങി മല കയറാൻ തുടങ്ങിയപ്പോൾ ഫുള്ള് മഴ പാറുന്ന സമയമായത് കൊണ്ട് ഉറവ ഉറവ ഒക്കെ ഉണ്ടായിരുന്നു മലയിലൂടെ മലയുടെ ഇടയിലൂടെ വെള്ളം ഇങ്ങനെ ഒഴുകി വരുന്നുണ്ടായിരുന്നു പിന്നെ കുറച്ചങ്ങു ദൂരെ എത്തിയപ്പോൾ കുറച്ച് സൂര്യനുദിക്കുന്ന സമയമായത് കൊണ്ട് സൂര്യൻ്റെ ഇടയിലൂടെയെല്ലാം നല്ല മരങ്ങൾക്കിടയിലൂടെ സൂര്യൻ ഉദിച്ചുവരുന്നത് കണ്ടപ്പോൾ നല്ല നല്ല ഭംഗിയുള്ള ഒര് കാഴ്ചയായിരുന്നു അത് അങ്ങനെ നമ്മൾ മല കയറി അങ്ങെത്തിയപ്പോൾ വ മൃഗങ്ങളുടെ ശല്യങ്ങളുണ്ടായിരുന്നു ആന പാമ്പ് അങ്ങനെയുള്ള ഓരോ മൃഗങ്ങളുടെ ശല്യം ഉണ്ടായിരുന്നു പക്ഷേ അവരൊന്നും നമ്മളെ അങ്ങനെ ഉപദ്രവിക്കാൻ നോക്കിയിട്ടില്ല പിന്നെ വളരെ നല്ലൊരു അനുഭവമാണ് കണ്ണൂർ ജില്ലയിൽ തന്നെ ഉള്ള ഏറ്റവും മനോഹരമായ ഒര് മലയാണ് പൈതൽമല ഞാനും എൻ്റെ കൂട്ടുകാരും ഇടയ്ക്കിടെ അവിടെ പോകാറുണ്ട് ഞാൻ ഫസ്റ്റ് പോയപ്പോളുള്ള അനുഭവമാണ് ഞാൻ ഇവിടെ പറഞ്ഞത് എനിക്ക് ഏറ്റവും നല്ല ഒര് അനുഭവമായിട്ടാണ് കൂടെ തോന്നിയത് പാല്കാച്ചി മല അങ്ങനെ കുറെ മലയുണ്ട് കണ്ണൂർ ജില്ലയിൽ തന്നെ ഞാനിപ്പോൾ പൈതൽ മലയെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞത് ക്കെ ഏറ്റവും വളരെ ഇഷ്ടപ്പെട്ട ഒര് മല തന്നെയാണ് പൈതൽമല അവിടെ മഴ കുറച്ച് മഞ്ഞ് കാലത്ത് പോയാൽ ഏറ്റവും നല്ലത് നല്ല ഒരിതല്ലേ മഞ്ഞ് കാലത്ത് പോയാൽ നല്ലകാഴ്ചകൾ കാണാൻ പറ്റും പിന്നെ അട്ടകൾ ഉള്ളതുകൊണ്ട് അതിനെ തുരത്താൻ എന്തെങ്കിലും കയ്യിൽ കരുതുക ആ അത് തന്നെ